കേരളത്തിൽ നമ്മുടെ ഗ്രാമത്തിൽ പലചരക്ക് കടകളിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ അതിൽ ചിലത് അരി ഗോതമ്പ് പഞ്ചസാര അവിൽ പലവ്യഞ്ജനങ്ങളായിട്ടുള്ള ഇഞ്ചി ചുക്ക് കടുക് ഉപ്പ് മല്ലി മുളക് ഉണക്കമുളക് കറുത്ത ജീരകം ചെറുജീരകം വലിയ ജീരകം ഉലുവ ഉലുവപ്പൊടി ധാന്യം പല ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങളായിട്ടുള്ള ചെറുപയർ വന്പയർ അപ്പോൾ ചെറുപരിപ്പ് പീസ് പരിപ്പ് പീസ് അട്ടാണി കടല എന്നിവയെല്ലാം ലഭ്യമാണ് നമുക്ക് അടുത്ത് ഈ ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ വഴി കിട്ടുന്ന വില കണ്ട് നമ്മൾ അവരുമായി തർക്കത്തിലേർപ്പെട്ട് തർക്കിച്ച് അവരില് നിന്നും വില കുറച്ച് മേടിക്കാനുള്ള ശ്രമം നടത്താറുണ്ടെങ്കിലും ചിലപ്പോഴൊന്നും അങ്ങനെ ചില വില കുറഞ്ഞു കിട്ടാറില്ല ഇതിനൊക്കെ ഒരു ഫിക്സ്ഡായിട്ടുള്ള റേറ്റാണ് ആ പണം കൊടുത്തുതന്നെ മേടിക്കേണ്ടിയും വരും എങ്കിലും ഇവിടെ അടുത്തടുത്ത് പല പല കടകളുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ലഭ്യമാണ്